ഹലോ സാർ ഞാൻ യൂത്ത് ടീമീന്നു കുറച്ചു പ്ലെയേഴ്സിനെയൊക്കെ നമുക്ക് ഇത് ചെയ്തായിരുന്നു പ്രോഗ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കീ ഒന്നുരണ്ട് പ്ലേയേഴ്സ് ഉണ്ട് നല്ല ടാലൻറ് ഉള്ള ആയിട്ടുള്ള പ്ലേയേഴ്സുണ്ട് അപ്പോൾ അവരെ നമുക്ക് ടീമിലോട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാല്ലോ ഇപ്പം വീക്കായിട്ട് നിൽക്കുന്ന അല്ലാതെ ഫോമിലല്ലാത്ത പ്ലെയേഴ്സിനെ മാറ്റി നമുക്ക് അവരെ യൂസ് ചെയ്തുനോക്കിയാല്ലോ നമുക്ക് ട്രെയിനിങ്ങിൽ മറ്റേ സ്റ്റാമിനായുള്ള നമുക്ക് മെഷിൻസ് ഇല്ലേ അതുവെച്ചുനോക്കിയിട്ട് അവരുടെ എന്നാ പറയുന്നത് സ്റ്റാമിനയില്ലാതെ കാണിക്കുന്നേ അങ്ങനെയാണോ കാണിക്കുന്നത് ആഹ് ആഹ് ഓക്കേ എന്നാൽ നമുക്കേ നമുക്കങ്ങനെ ഫസ്റ്റ് ടീമിലുള്ള കുറച്ചു പ്ലയേഴ്സിനെ ഞാനിപ്പോൾ പറഞ്ഞപോലെ അവർക്ക് റസ്റ്റ് കൊടുത്തിട്ട് നമുക്കിച്ചിരി അവസരം കൊടുക്കാത്ത പ്ലെയേഴ്സിന് നമുക്ക് കൊടുത്താലോ നമ്മുടെ റിസേർവ് ടീമിൽ കിടക്കുന്ന പ്ലെയേഴ്സിനെ എടുത്ത് അവസരം കൊടുക്കാം പിന്നെ കുറച്ചു യങ് പ്ലെയേഴ്സിനും കൊടുക്കാം അവസരം അവരെല്ലാം റസ്റ്റ് എടുത്തോട്ടെ ചിലപ്പോൾ അവർക്കൊരു ആറ്റിട്യൂഡിലോ അങ്ങനെയെന്തേലും വന്ന ചേഞ്ച് അങ്ങനെ വല്ലോം ആയിരിക്കാം അവർക്കെന്തേലും വിഷയങ്ങളോ ഫാമിലിയായിട്ട് വല്ല പ്രോബ്ളമോ അങ്ങനെയെന്തേലുമൊക്കെ ഉണ്ടെങ്കിലോ ഓക്കേ നമുക്കൊരു ലീഡർഷിപ്പ് ക്വോളിറ്റിയുള്ള ഒരു പ്ലേയർ എന്നാണെന്നുവെച്ചാലും വേണം നമ്മുടെ ഡിഫൻസിനെ അങ്ങനെ വലുതായിട്ട് മാറ്റുന്നില്ല ലീഡർഷിപ്പ് ക്വോളിറ്റിയുള്ളൊരു പ്ലെയറും ബാക്കിയൊരു രണ്ട് യങ്സ്റ്റേഴ്സിനെ അടുപ്പിച്ചിട്ട് കളിപ്പിക്കാം ബാക്കിയെല്ലാവരും മെയിൻ ടീമിലുള്ളവർ തന്നെ ഇപ്പോൾ ഫോം ഔട്ട് ആണെന്നുപറഞ്ഞില്ലേ അവരെ നമുക്ക് മാറ്റിക്കളിപ്പിക്കാം മാച്ചിന് മുൻപായിട്ട് നമുക്ക് അതൊരു മീറ്റിങ് വെക്കാം ആ ആ അങ്ങനെ വേണം പ്ലാൻ ചെയ്യാൻ അപ്പോൾ നമുക്ക് ഫോർമേഷൻ ചേഞ്ചിനും ഏത് സ്റ്റാറ്റിക്സ് ആണുപയോഗിക്കേണ്ടത് കൌണ്ടർ അറ്റാക്ക് വേണോ അങ്ങനെ വല്ലോം നമുക്ക് ചെയ്യാം ആഹ് ഓക്കേ ഓക്കേ ഉം